പണ്ടു മുതല്ക്കേ നമ്മൾ കേട്ടു വരുന്ന നാടോടി ഗാനങ്ങളാണ് നാടന് നാടന് പാട്ട് അതേപോലെ ഞാറ്റുപാട്ട് കൊയ്ത്തുപാട്ട് അങ്ങനെ പല രൂപത്തിലുള്ള നടോടിഗാനങ്ങളുണ്ട് ഇതിലിപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് നമ്മളെ നാടന് പാട്ടാണ് ഇപ്പോഴും കൂടുതലാള്ക്കാർ ആസ്വദിച്ചു വരുന്നതും ആരാധകരുള്ളതും ഇപ്പോൾ നമ്മുടെ നാടന്പാട്ട് സ്റ്റേജ് പ്രോഗ്രാമായിട്ടും ഇവൻ്റിലും എന്നു പറഞ്ഞാല് നമ്മുടെ ടീവീ ഷോയിൽ വരെ മത്സര ഇനം ആയിട്ടു തന്നെ ഒക്കെയും ഈ നാടന് പാട്ടിനെ നമ്മൾ കാണാറുണ്ട് അതേപോലെ നമ്മുടെ സ്കൂളിലൊക്കെ ആണെങ്കിലും ഒരു മത്സരയിനമായിട്ട് നമ്മുടെ നാടന് പാട്ട് അവതരിപ്പിക്കാറുണ്ട് വളരെ കുറച്ച് വാദ്യോപകരണങ്ങള് വച്ച് ഇങ്ങനെ ഈ പല പല പാട്ടുകൾ കോര്ത്തിണക്കികൊണ്ടാണ് ഇപ്പം ഈ നാടന്പാട്ടുകൾ നമുക്ക് കേള്ക്കാന് കഴിയുന്നത് നാടന് പാട്ടിന് പല രൂപത്തിലുള്ള ശൈലിയിൽ നാടന് പാട്ട് അവതരിപ്പിക്കാറുണ്ട് നാടന്പാട്ട് ഒരുപാട് പേര് ചേര്ന്ന് അവതരിപ്പിക്കാറുണ്ട് ഒരാൾ തന്നെയും അവതരിപ്പിക്കാറുണ്ട് ഇപ്പഴ് കൂട്തൽ ഗ്രൂപ്പായിട്ടാണ് നാടന് പാട്ട് നമ്മൾ സാധാരണ ഇപ്പം കണ്ട് വരുന്നത് ഒരാള്ക്ക് തന്നെയാണെങ്കിലും അവതരിപ്പിക്കാം അപ്പം കൂട്തലും ഇപ്പം നാടന് പാട്ടിനാണ് കൂടുതൽ ആരാധകരുള്ളത് ഇപ്പോഴും ആ ഒരു അതിൻ്റേതായ തനിമ നില നിര്ത്തിക്കൊണ്ട് പോവുന്ന ഒരു ഇത് കലയാണ് നാടന് പാട്ട്